മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അതായതിപ്പം നമ്മുടെ ഗവൺമൻറ് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് ഐങ്ങാണ്ട് അതേമാതിരി സൈക്കാട്രിസ്റ്റുകൾ അതായത് ഈ ചെറ് ചെറിയ ക്ലിനിക്കുകൾ അതായത് കുട്ടികൾ എങ്ങനെ ഈ വിഷാദ രോഗങ്ങളിൽ ടെൻഷനും കാര്യങ്ങൾ ഒക്കെ ഇങ്ങോട്ട് മാനസിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ അങ്ങനത്തേതിലൊക്കെ പെട്ട് ചെല്ലുമ്പോൾ നമുക്ക് അതിലേക്കൊരു ഉൽബോധനം തന്ന് അങ്ങ് ഡോക്ടർമാർ നമ്മളെ രക്ഷപ്പെടുത്താറുണ്ട് അതായത് മണിക്കൂറുകൾ ആയിരിക്കും അവരുടെ ക്ലാസുകൾ നാലും അഞ്ചും മണിക്കൂറുകൾ അവരുടെ അടുത്തിരുന്ന് കൊണ്ട് നമ്മൾ തൊട്ടും തലോടിയും അവർ നമ്മൾ വിഷമങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് കാര്യക്കേടുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിത്തന്ന് അവർ നമ്മളെ അതിൽ നിന്ന് ബോധവാന്മാരാക്കി നമ്മളെ ടെൻഷനുകൾ കുറച്ച് തരും അതുപോലെ തന്നെ കേന്ദ്രങ്ങളുടെ ചോദിച്ചാൽ ഇപ്പം മഞ്ചേരി കോഴിക്കോട് കോട്ടയ്ക്കൽ പിന്നെ കോഴിക്കോട് കുതിരവട്ടം അങ്ങനെ മെൻറാലിറ്റി അതായത് ആളുകളെ ഒക്കെ പാർപ്പിച്ച് കൊണ്ട് അവരെ രോഗങ്ങൾ മരുന്നുകൾ കൊണ്ടും യോഗ കൊണ്ടും അതേമാതിരി പിന്നെ പല എക്സർസൈസ് ആര് ഇങ്ങനത്തെ ആരോഗ്യപരമായ എല്ലാ സമീപനം കൊണ്ട് അതേമാതിരി അവർക്ക് നല്ല പിന്നെ ചുറ്റുപാടുകൾ കൊടുത്ത് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് അവേർനസ് മരുന്നവരെ കെയർ ചെയ്ത് കൊണ്ട് രോഗങ്ങൾ മാറ്റിക്കൊടുക്കുന്ന കേന്ദ്രങ്ങളുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അവരോട് എങ്ങനെ പെരുമാറി പെരുമാറ്റം അനുസരിച്ച് അവരുടെ സ്വഭാവം നന്നാവുന്ന ആളുകൾ ഉണ്ട് ചിലർക്ക് ജനന സമയത്ത് തന്നെ വൈകല്യങ്ങൾ ഉണ്ടാവും സ്വഭാവ രീതിയിൽ അവരെ നല്ല ആളുകളുടെ ഇടയിലേക്ക് വരുത്തി നമ്മുടെ ഇടയിലേക്ക് നമ്മൾ അവരെ കൈ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ സ്വഭാവങ്ങൾ മാറ്റാംം നമുക്ക് അങ്ങനെ ചിലവരൊക്കെ നമുക്ക് വിഷാദ രോഗത്തിന്നും ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഈ മാനസികാരോഗ്യപരമായ പല രോഗങ്ങൾ കൊണ്ട് അങ്ങനെ ഒക്കെ നമുക്ക് അവരെ കൈ പിടിച്ചുയർത്താം അതുപോലെ തന്നെ നമ്മുടെ സമീപനം എങ്ങനെയാണോ അങ്ങനെ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ചിലർക്ക് വീടുകളിൽ നിന്ന് ഡിപ്രെഷൻ അതായത് സമൂഹത്തിൽ നിന്ന് വരുന്ന ചില ചിലർ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ അങ്ങനത്തെ ടെൻഷൻ കൊണ്ട് അതേമാതിരി പേടികൾ കൊണ്ട് അങ്ങനെ ഒക്കെ വരുന്ന പ്രശ്നങ്ങളുണ്ട് മാനസിക പരമായി ചിലർക്ക് പിന്നെ പാരമ്പര്യമായി ചില ജീനുകൾ ഒക്കെ ചില ശരിത്തിൽ വരുമ്പോൾ പാരമ്പര്യമായി വീട്ടിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാകാം അവരെ ഒക്കെ നമ്മുടെ സമൂഹത്തോട് കൂട്ടി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ചവരെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുത്താം അതേമാതിരി മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ അതായത് ഇങ്ങനെ സംരക്ഷിക്കുന്ന ഈ രക്ഷപ്പെടുത്തുന്ന ഡോക്ടർമാരുടെ ഇടയിൽ കൊണ്ട് പോയി അവരെ നമുക്ക് രക്ഷപ്പെടുത്താം മരുന്നുകൾ കൊണ്ടും പിന്നെ ഒക്കെ കൊ നമുക്ക് രക്ഷപ്പെടുത്താം അതുപോലെ പിന്നെ നല്ല നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതായത് കണ്ണിന് കുളിർമ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മുടെ ഇടയിലേക്ക് അവരെ കൊണ്ടുവന്ന് നല്ല ഫംഗ്ഷനിലും പരിപാടികളിൽ ഒക്കെ കൊണ്ടുപോയി അതേമാതിരി നല്ല ക്ലാസുകൾ ഉണ്ടാവും നമുക്ക് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി പോരുന്ന ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് നല്ല കേൾക്കാനിമ്പമുള്ള നല്ല ഇപ്പോൾ സൈക്കാഷ്നോ ഷബർഹ അങ്ങനെ ഒക്കെ നല്ല നല്ല ഡോക്ടർമാരുണ്ട് നമുക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്ന നല്ല നല്ല ഡോക്ടർമാരുണ്ട് അവരെ ക്ലാസിലേക്ക് ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും അല്ലെ നമ്മളിലേറെ പ്രശ്നങ്ങളെ ക്ലാസിലാണ് നമുക്ക് എടുത്ത് തരിക അപ്പം നമ്മളെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ഇങ്ങനത്തെ ചെറിയ ചെറിയ മാനസിക രോഗ വിഷയങ്ങളൊക്കെ വിഷ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സമൂഹം ഉണ്ടാക്കാൻ കഴിയും ഇങ്ങനെ പ്രശ്നങ്ങളിൽ പെട്ടവരെ നല്ല സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും പിന്നെ ആരോഗ്യപരമായും എല്ലാ ഇതിലും സാമ്പത്തിക പരമായി നമ്മൾ അവരെ സഹായിച്ച് കഴിഞ്ഞാൽ അവരും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരും അവർക്കും നല്ലൊരു ജീവിതം ലഭിക്കും നല്ലൊരു നാടുണ്ടാവും അത് നമുക്ക് പാർത്ഥിക്കാം